ഹലോ പറഞ്ഞോളൂ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഏത് ജില്ലയിലാണ് വേണ്ടേത് നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ അല്ലേ അപ്പോൾ കോഴിക്കോട് ജില്ല എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു സിറ്റിയെന്ന ആയത് കൊണ്ട് കുറച്ച് റേറ്റ് കൂടും ഈ വീടിന് വീട് നോക്കാൻ ആ ഓക്കെ ആ അതെ അതെ റേറ്റ് കൂടും കോഴിക്കോട് ജില്ല അതേപോലെ മലപ്പുറം കണ്ണൂർ പിന്നെ അതേപോലെ എറണാകുളം ട്രിവാൻഡ്രം ഇങ്ങനത്തെ ഈ ഒരു ജില്ലകളിലൊക്കെ എന്താണ് കൂടുതലും റേറ്റ് കൂടണത് ഒരു ഏരിയകളാണ് മൊത്തം മൊത്തത്തിലുള്ളത് ഓക്കെ ഓക്കെ ആ അതെ അതെ അതെ കോഴിക്കോടില്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വീട് ഇപ്പം എങ്ങനത്തെ വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കണത് എത്ര മൂന്ന് നാല് ഓക്കെ ഓക്കെ നിങ്ങളുടെ ബഡ്ജറ്റെന്ന പറയുമ്പോൾ എത്ര ഉള്ളത് ബഡ്ജറ്റ് ഓക്കെ ഓക്കെ ബഡ്ജറ്റ് കുഴപ്പമില്ല അല്ലേ അപ്പോൾ കോഴിക്കോട് കാനരമുക്കൊരു വീടുണ്ട് ഒരു മൂന്ന് തട്ട് അതുപോലെ നടുലയങ്ങൾ പറഞ്ഞത് പോലെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വീടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ എത്ര വെച്ചാൽ ഒന്നര കോടിയാണ് ആ റേറ്റ് വരുന്നത് ഒന്നരക്കോടി ഒന്നാമത് ഒരു അങ്ങാടിയിലാണ് മെയിൻ ഒരു പ്ലേസില ആയത് കൊണ്ട് തന്നെയാണ് കൂടുതൽ റേറ്റും കാര്യങ്ങളും വരുന്നത് പിന്നെ മൂന്ന് തട്ട് പിന്നെ അതേപോലെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ എല്ലാ ഇത്തരത്തിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റം അതേപോലെ കൂടുതൽ ഏകദേശം ഒര് പത്ത് പത്ത് എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് ഏറ്റവും സെൻറ്റ് കാര്യങ്ങളുണ്ട് ചുറ്റുവോറം ആ അപ്പോൾ മുക്കാണെങ്കിലും മുമ്പക്കും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് വിശാലമാണ് ആ അപ്പോൾ നിങ്ങൾ നോക്കിയ അപ്പോൾ നമ്മൾ നോക്കണമെന്ന് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് വേണേൽ നമുക്ക് ഒപ്പിക്കാം ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീട് എവിടാണ് വരേണ്ടത് ഓക്കെ മലപ്പുറമല്ലേ ഞാൻ കോഴിക്കോടാണ് ഉള്ളത് അപ്പം നിങ്ങൾ വിളിക്കാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ വരുകയാണെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് ഒന്നിച്ച് പോയി കണ്ട് ഒന്ന് ഡീലാക്കി പോരാം ഓക്കെ അപ്പോൾ താങ്ക് യൂ വിളിച്ചതിന് നന്ദി ഓക്കെ താങ്ക് യൂ